അതേ ചേട്ടാ ഞങ്ങള് ഒരു പത്ത് മിനിറ്റ് മുൻപ് കുറച്ച് ഫുഡ് ഓർഡർ ചെയ്തിരുന്നു ഒരു നാല് ബിരിയാണി ഒരു പത്ത് പൊറോട്ട ഒരു രണ്ട് ബീഫ് ഫ്രൈ രണ്ട് ചിക്കൻ ഫ്രൈ ഇങ്ങനെ ഇങ്ങനെ ഈ ഐറ്റംസാണ് ഓർഡർ ചെയ്തത് പക്ഷെ എന്തെന്ന് വെച്ചാൽ ഞങ്ങൾക്കിപ്പോൾ ചിക്കൻ ഫ്രൈ ആവശ്യമില്ല അത് തെറ്റായി ഓർഡർ ചെയ്തതാണ് ഇപ്പോൾ അതൊന്ന് ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയാണ് വിളിക്കുന്നത് അതെ പത്ത് മിനിറ്റായിട്ടുണ്ടാകും ആ ഒരു ഏഴ് മുപ്പതിന് ആണ് ഞങ്ങള് ഓർഡറ് ചെയ്തത് അതേ ചേട്ടാ അതൊന്ന് ക്യാൻസൽ ചെയ്യണം കാരണം ചിക്കൻ ഫ്രൈ ഞങ്ങള് തെറ്റായിട്ട് ഓർഡർ ചെയ്തതാണ് അതിൻ്റെ ആവശ്യം ഇല്ല അയ്യോ അങ്ങനെ പറയരുത് കാരണം ഞങ്ങൾക്കത് ആവശ്യം ഇല്ല ഞങ്ങളത് തെറ്റായിട്ട് അറിയാതെ ഓർഡർ ചെയ്തതാണ് നിങ്ങളെന്തായാലും ഇറങ്ങീട്ടില്ലല്ലോ അപ്പോൾ അതൊന്ന് ക്യാൻസൽ ചെയ്യണം കാരണം അത് ആവശ്യം ഇല്ലാത്തതു കൊണ്ടാ അതുകൊണ്ടാണ് ഞങ്ങൾ പെട്ടന്ന് തന്നെ വിളിച്ചത് അതെ അതെ ഞങ്ങളുടെ ഭാഗത്ത് നിന്നുള്ള ഒരബദ്ധം ഉണ്ടായതാണ് നിങ്ങള് അതൊന്ന് ക്യാൻസൽ ചെയ്യണം ഓ താങ്ക്യു ചേട്ടാ